കേരളത്തിലിപ്പം മലയാളം നല്ലതുപോലെ ഉപയോഗിക്കാൻ പ്രാവീണ്യമുള്ള ചെറുപ്പക്കാരും കുട്ടികളൊക്കെ കുറഞ്ഞുവരികയാണ് എൺപത് ശതമാനം കുട്ടികളും പ്ലസ് ടുവിന് ശേഷം അന്യദേശത്തേക്ക് പഠനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് പിന്നൊരു കാര്യം മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലെന്നുള്ളൊരു ധ ധാരണയുണ്ട് എല്ലാവർക്കും ഇപ്പം സാമ്പത്തിക സ്ഥിതി ഉയർന്ന കുടുമ്പത്തിലെ കുട്ടികളെല്ലാം കേരളത്തിന് വെളിയിലുള്ള നഗരങ്ങളിലാണ് പഠിക്കാൻ പോകുന്നത് അവരുടെ അവിടുത്തെ വ്യവഹാരഭാഷ ഇംഗ്ലീഷാണ് അതുപോലെ നമ്മുടെ നാട്ടിൽത്തന്നെ അധ്യാപകർ പ്രമുഖ വ്യവസായികൾ മലയാള എഴുത്തുകാർ ഇവരുടെയെല്ലാം മക്കൾ കേരളത്തിന് വെളിയിലായിരിക്കും പഠിക്കുക ഇതെല്ലാം മലയാള ഭാഷ പഠനത്തെ ബാധിച്ചിട്ടുണ്ട് ഇതിൽ വിദ്യാർത്ഥികൾ അവരുടെ സിലബസ്സിനപ്പുറം അത്ര പുസ്തകം വായിക്കും വായിക്കാൻ അവർക്ക് സമയമെവിടെ ഇന്നും മലയാളികൾ എന്നറിപ്പെടുന്നവരിലേതാണ്ട് പതിനഞ്ച് ശതമാനം ആളുകൾ കേരളത്തിന് വെളിയിലും വിദേശത്തുമാണ് അവരുടെ ഭാഷ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്